അത് കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ എന്ന് രാമനാമം ചൊല്ലുമ്പം പറയുന്ന ഒരു ഇതുണ്ട് അപ്പം അതിൽ ദൈവങ്ങൾ ആവശ്യം ഇപ്പം എന്താണ് ദൈവം വിചാരിച്ചാൽ മാത്രമേ ഇപ്പം അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് അയാളെ കാണാൻ പറ്റാതായി അതായത് അയാൾ മരിച്ചു പോകുന്നു അപ്പം അതൊക്കെ തീരുമാനിക്കുന്നത് ദൈവമാണ് പിന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യപ്പെട്ട് കിടക്കുന്ന ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ധനവാനായിട്ട് കാണാൻ പറ്റുന്നതും അപ്പം ധനിക ധനവാനായിട്ട് ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം അയാൾ ദാരിദ്രത്തിലേക്ക് പോകുന്നതും ഇതെല്ലാം ദൈവത്തിൻ്റെ കളികളാണെന്നാണ് പറയുന്നത് അതായത് നമ്മൾ ജീവിക്കുമ്പം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഇതുണ്ടാവണം അതായത് നമ്മൾ സമ്പത്തോ അല്ലെങ്കിൽ നമ്മുടെ സുഖമോ ഒന്നിലും തന്നെ നമ്മൾ എന്താ ഒരുപാട് ഭ്രമിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ആ നമുക്ക് എല്ലാമായി എന്നൊരു ചിന്ത ഒരിക്കലും മനസ്സിൽ ഉണ്ടാവാൻ പാടില്ലയെന്നാണ് പറയുന്നത് നമ്മൾ എപ്പോഴും ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ നില നിർത്തി ജീവിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ ഒരുപാട് സുഖം വരുമ്പോഴും നമ്മൾ ആലോചിക്കണം ഇത് എപ്പോഴാണ് നമ്മുടെ കൈവിട്ട് പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിലൊന്നും അഹങ്കരിക്കാൻ പാടില്ല ഇപ്പം സുഖമായാലും സന്തോഷത്തിലായാലും അഹങ്കാരിക്കാതെ എല്ലാം ദൈവത്തിനെ നില നിർത്തികൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് ഒന്നിലും തന്നെ അഹങ്കരിക്കരുത് അഹങ്കാരം എന്തിന് നാശത്തിൻ്റെ തുടക്കമാണ് എന്ന് പറയും അതുകൊണ്ട് എല്ലാം നമ്മൾ എന്തോന്നാ എപ്പോഴും ഒരു അഹങ്കാരം ഇല്ലാത്ത മനസ്സോടുകൂടി എപ്പോഴും ദൈവവിചാരത്തോട് കൂടി ജീവിക്കണം എന്നാണ് പറയുന്നത്